നമ്മളൊരു കാർഡ് ഉണ്ടാക്കുമ്പോൾ അത് നമുക്കത്രയും ഇഷ്ടമുള്ളൊരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഞാനൊരു കാർഡ് ഉണ്ടാക്കിയത് അതിൽ പലതരം തൂവലുകളും അതേപോലെത്തന്നെ പലതരം ചെറിയ ചെറിയ ഇലകളും വെച്ച് നല്ല ഡിസൈൻ ചെയ്ത് നല്ല ഭംഗിയിൽ അക്ഷരങ്ങളെഴുതി ആണ് ആ കാർഡ് രൂപകൽപന ചെയ്തത് അത് കൊടുക്കുന്ന ആൾക്കും എപ്പോഴും നമ്മളെ ഓർക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അതേപോലെത്തന്നെ നമുക്കത്രയും ഇഷ്ടമുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കാർഡ് നിർമ്മിക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സംതൃപ്തി നമ്മൾക്ക് ഉണ്ടാവും അത് വാങ്ങിക്കുന്ന ആൾ എപ്പോഴും നമ്മളെ ഓർക്കാനും അത് സഹായകമാവും അതേപോലെത്തന്നെ അതിൻ്റെ ഡിസൈനും അത് അതേപോലത്തന്നെ അതിൻ്റെ വാക്കുകളും സ്പെഷ്യൽ ആയിരിക്കും നമുക്കെപ്പോഴും അവരോട് ഉള്ളൊരിഷ്ടം ആ ഒരു കാർഡിൽ നമ്മൾ കാണിക്കാറുണ്ട് അപ്പം അത്രയും നല്ലൊരു കാർഡായിരിക്കും നമ്മുടെ കൈകൊണ്ട് ഉണ്ടാക്കി അവർക്ക് നൽകാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്